കുട്ടികൾ ഒഴിവ് സമയങ്ങൾ വിനോദത്തിനായി പല തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടാറുണ്ട് ഓട്ടം ചാട്ടം സ്വിമ്മിങ്ങ് സൈക്ക്ലിങ്ങ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഡാൻസിങ്ങ് സിംഗിങ്ങ് തുടങ്ങിയ കലാപരമായ പ്രവർത്തനങ്ങൾലും അവർ ഏർപ്പെടാറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തിൽ നിന്നുള്ള ഒഴി ഒഴിവ് സമയങ്ങളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും അവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് അവരുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് ഏത് സമയവും പുസ്തകത്തിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ ഇത്തരത്തിലുള്ള കലാകായിക പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെടേണ്ടത് അത്യാവശ്യമാണ്